നമക്കറിയാവുന്ന നൃ നൃത്തം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പം നമുക്ക് കൂടുതലറിവ് ലഭിക്കുകയാണ് അവർക്കും നമ്മളെ പോലെ നൃത്തം കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവര് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവര് തെറ്റിക്കുമ്പം അവരെ ഉപദേശിച്ചൊന്നും കൂടി നമ്മള് നൃത്തം ആ നേരെയാക്കുമ്പം അവര് നൃത്തം നല്ലോണം കളിക്കുന്നു അപ്പം നമ്മുടെ അംഗീകാരം ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളൊര് ടീച്ചറായിട്ടൊര് കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നൃത്തം അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പം അവര് നന്നായിട്ട് കളിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരുടെ ഇടയിലൊര് പ്രോത്സാഹനമാണ് കിട്ടുന്നത് ആ ആ കൊച്ചെന്നെ പഠിപ്പിച്ച് തന്ന നൃത്തമാണെന്ന് പറയുമ്പഴത്തേക്കും നമ്മള് സമൂഹത്തിലൊരു നമുക്കൊരു വില കിട്ടുന്നുവെന്ന് നിലയും വിലയും കിട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന നൃത്തം അറിയാവുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കണം അവര് പഠിപ്പിച്ച് നമുക്ക് കളിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവര് നമക്ക് വേണ്ടി കളിക്കുമ്പഴത്തേക്കും എനിക്ക് പറ്റിയില്ല പഷേ അവരത്ര ഉയർന്ന് അത്രയും പഠി ആ നൃത്തം ചെയ്യാൻ പറ്റിയല്ലോ എന്നോർക്കുമ്പോൾ നമ്മള് നമ്മുടെ ജീവിതത്തിലാ ആ നമുക്ക് ഒരു അഭിമാനം തോന്നും അതുപോലെ നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാൻ ശ്രമിക്കണം എപ്പഴും നൃത്തത്തില് ആ നൃത്തം നമ്മളാരും നമുക്ക് ഇങ്ങനെ ഗ്രൂപ്സ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പഴത്തേക്കും പള്ളികളിലാണേലും ആ കുടുംബയോഗങ്ങളിൽ ഒക്കെ ആണേലും നമ്മളോരോന്ന് ഞാനങ്ങനെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പഠിപ്പിച്ച് കൊടുത്തപ്പം ഒത്തിരി നേട്ടങ്ങള് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിലെനിക്ക് നല്ലൊരു പേര് കിട്ടി ആ പിന്നെ നല്ലൊരനുഭവം കിട്ടി നമുക്ക് അറിയാവുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പിന്നെയും കൂടുതലാണ് നൃത്തത്തില് കൂടുതല് നമുക്ക് അറിവ് ലഭിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നൃത്തം കളിക്കുമ്പം നമ്മുടെ ശരീരത്തിനൊര് വ്യായാമമാണ് അത് നമ്മള് ആ വ്യായാമം മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കുമ്പഴത്തേക്കും അവരും ആ നൃത്തത്തിലേർപ്പെടുമ്പോൾ നമ്മളെ അംഗീകരിക്കുന്നതിനു തുല്യമായിട്ടാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത്